ആ ഹലോ പറയൂ ആ ഉവ്വ് ആ ഉവ്വ് ആ ഡെല്ലി എവിടെനിന്ന് എവിടെയാണ് നിങ്ങളുടെ നേറ്റീവ് പ്ലേസ് പഞാബില്നിന്നു വരുന്നു നിങ്ങള് നാലു പേരാണല്ലേ ആ ഉവ്വ് നമ്മള് വണ്ടിയും കുട്ടികൾക്ക് എത്ര ഏജ് പന്ത്രണ്ടും പതിമൂന്നും വയസ്സായ കുട്ടികൾക്ക് മുതിർന്നവരുടെ പകുതി നമ്മള് പേ ചെയ്യേണ്ടിവരും പത്തു വയസ്സില്ത്താഴെയുള്ള ഒരാള് ഫാമിലി ആവുമ്പോഴൊരാളെ ഫ്രീയായി നമുക്കു കൊണ്ടുപോകാവുന്നതാണ് ആ ഷോപ്പിങ്ങൊക്കെ ചെയ്യാൻ നല്ല സ്ഥലമാണ് നമുക്ക് നിങ്ങള് ആവശ്യപ്പെടുന്നതെല്ലാം ആ വളരെ ചീപ്പ് റേറ്റില് എല്ലാ സാധനങ്ങളും കിട്ടും എന്തൊക്കെ ഓരോ ഓരോ വിഭാഗത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്ലേസുകളുണ്ട് ഷോപ്പെയ്യാൻ ആ അഡ്വാൻസ് നിങ്ങള് ബുക്കെയ്യുമ്പോള്ത്തന്നെ നിങ്ങള് പകുതിത്തുക നമുക്കു പേ ചെയ്യേണ്ടിവരും അപ്പോള് നിങ്ങള്ക്ക് വെഹിക്കിളും ഒരു ടൂറിസ്റ്റ് ഗൈഡും കൂടി ആവശ്യമുണ്ടല്ലോ ആ അപ്പോള് നിങ്ങള് പകുതി എമൗണ്ട് ആദ്യം പേ ചെയ്യണം അപ്പോഴാണ് ഞങ്ങള് നിങ്ങളുടെ ഡീറ്റെയിൽസെല്ലാം വച്ച് ഞങ്ങളുടെ വാഹനം ബുക്കെയ്തിടുന്നതേ ബാക്കി നിങ്ങള് ഷോപ്പ് കഴിയുമ്പോള് നിങ്ങളുടെ ആധാർ കാർഡ് വേണം പോകുന്ന എല്ലാവരുടെയും ആധാർ കാർഡ് വേണം പിന്നെ വേറെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും വേണ്ട എന്നാണു വരുന്നത് എന്നാണു നിങ്ങള് തീർക്കാൻ ഉദ്ദേശിക്കുന്നത് ഡേറ്റുകളും കൂടെ പറയണം നാളെത്തൊട്ടു നാലു ദിവസത്തേക്കു രാവിലെ തന്നെ എത്തുമല്ലോ അല്ലേ നിങ്ങള് എവിടെ ആ സ്റ്റേ ആണ് ആ ഉവ്വ് ഉവ്വ് ഓക്കേ ഓക്കേ ആ പിന്നെ നിങ്ങള് അതിൻ്റെ കാര്യങ്ങള് വണ്ടി ഫ്രീ ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലോട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങള് സെൻറ്റെയ്യാം ഈ നമ്പറിലോട്ട് സെൻറ്റെയ്താല് മതിയോ ഞങ്ങളുടെ ടൂർ പാക്കേജുകളുടെ ഒരു ലിസ്റ്റുണ്ട് അത് ഞങ്ങള് നിങ്ങൾക്ക് സെൻറ്റെയ്യാം അപ്പോള് അതിൽ അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളുണ്ട് അതില് നിങ്ങള്ക്ക് കംഫർട്ടാവുന്ന ഏതെങ്കിലും ഒരെണ്ണം സെലക്ടെയ്ത് ഞങ്ങളെ അറിയിച്ചാല് അതിനു വേണ്ട കാര്യങ്ങള് ചെയ്തുതരാവുന്നാണ് താജ്മഹലില് ഫോട്ടോ ഷൂട്ട് പുറത്തു മാത്രമേ അനുവദിക്കുകയുളു ഉള്ളിലിപ്പോള് നമ്മള് ഫോൺ പോലുള്ള കാര്യങ്ങൾ നമ്മളവിടെ അലൗ ചെയ്യുകയില്ല പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ അവിടെത്തന്നെ ഫോട്ടോഗ്രാഫേഴ്സുണ്ട് അവരോടു പറഞ്ഞാള് നിങ്ങള്ക്ക് ക്യാഷ് കൊടുത്തന്നേരം തന്നെ നിങ്ങളുടെ ഫോട്ടോസ് കിട്ടും ഫോൺ അലൗ ചെയ്യില്ല ആ ഞങ്ങളുടെ ടൂർ പാക്കേജ് നിങ്ങളുടെ നമ്പറിലോട്ട് സെൻ്റെയ്യാം നിങ്ങള്ക്കിഷ്ടമുള്ളത് സെലക്ടെയ്തതിന്റെ ഒരു സ്ക്രീൻ ഷോട്ട് അയച്ചു ഞങ്ങള്ക്കു തിരിച്ചയച്ചേച്ചാല് മതി അപ്പോള് ഞങ്ങളതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്നതാണ് ഹോട്ടല് നമ്മടെ ടൂർ പാക്കേജ് ഓരോ വെഹിക്കിൾ അനുസരിച്ച് നിങ്ങള്ക്ക് ഏതു വാഹനമാണെന്നു സെലക്റ്റെയ്യുമ്പോള് അതിൻ്റെ കൂടെത്തന്നെയുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ള കാര്യങ്ങൾ ഫോർ വീലറാണ് വേണ്ടത് ആ അതിൻ്റെ ഡീറ്റെയിൽസ് സെവൻ തൗസൻഡില് കൂടുതലാവില്ല വൺ ഡേ സെവൻ തൗസൻഡ് അതില്ക്കൂടുതലാവില്ല ഓഫര് കാര്യങ്ങള് നിങ്ങള് കുറച്ചു നേരത്തേ ബുക്കെയ്തതായിരുന്നെങ്കില് നമുക്കത് സെറ്റെയ്യാമായിരുന്നു ഇതിപ്പോള് നിങ്ങള്ക്കു നാളെ രാവിലെ വേണമല്ലോ അപ്പോള് നിങ്ങളുടെ ആ ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം ഞങ്ങളിപ്പോള് സ്റ്റോപ്പെയ്തുവച്ചിരിക്കുകയാണ് അതൊരാഴ്ച മുമ്പേ ബുക്കേയ്യുന്നവർക്കാണ് നമ്മള് ഓഫറുകള് പ്രൊവൈഡേയ്യുന്നത് ആ ഓക്കെ താങ്ക്യൂ